ഞങ്ങളുടെ സ്ഥലം പാലക്കാട് ജില്ല കിണാശ്ശേരിയാണ് കിണാശ്ശേരിയിലെ പുലരി വായനശാലയിലെ ഒരുപാട് ആളുകൾക്ക് പത്രങ്ങൾ വായിക്കാൻ കഴിയുന്ന ലൈബ്രറി ഉണ്ട് പുലരി വായനശാല എന്നാണ് പറയുന്നത് അവിടെ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനും പത്രം വായിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്